സാങ്കേതികവിദ്യയുടെ ഉപയോഗം മൂലം നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ നമുക്ക് ആർക്കും ഏതൊരു ഏതൊരു വ്യക്തിക്കും നമുക്ക് ഏതൊരു ഈ ലോകത്ത് നടക്കുന്ന എന്ത് കാര്യങ്ങൾ നമുക്ക് അറിയാനുള്ള ഒരു സംവിധാനം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ സാങ്കേതികവിദ്യ കൊണ്ട് എങ്ങനൊരു ഗുണങ്ങളുമുണ്ട് സാങ്കേതികവിദ്യ കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടന്ന് പറഞ്ഞാൽ ഒരാളോട് എങ്ങനെ നേരിട്ട് സംസാരിക്കണം നേരിട്ട് ഒരാളോട് എങ്ങനെ ഇടപഴകണം എന്നൊക്കെ ചില ആൾക്കാർക്ക് അതൊന്നും ഇപ്പോഴും അറിയത്തില്ല അപ്പോൾ അതിനൊക്കെ ഒരു പങ്ക് വഹിക്കാനും ഈ സോഷ്യൽ മീഡിയ സാങ്കേതികവിദ്യ ഇങ്ങനെ കൊണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഇവയൊക്കെ പിന്നെ ഇപ്പോൾ ഒരു ബസ്സിലോ അല്ലെങ്കിൽ ഒരു ട്രെയിനിലോ സഞ്ചരിക്കുന്നത് കൂടെയുള്ള ഒരാളുടെ അടുത്ത് പേര് ചോയിക്കാനോ അതല്ലെങ്കിൽ അയാളെ കൂടെ പോകുന്ന നമുക്ക് ആശയവിനിമയം നടത്താനോ അല്ലെങ്കിൽ നിങ്ങളെ എന്തൊക്കെ ചെയ്യുന്നു നിങ്ങളെന്തൊക്കെ കാണുന്നു നിങ്ങളെന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് ചോയിക്കാനുള്ള ഒരു ധൈര്യം നമുക്ക് ധൈര്യക്കുറവ് നമുക്കിത്രയും ആൾക്കാരെ ഫേസ് ചെയ്യാനും നമുക്ക് ഇത്രയും ആൾക്കാരെ നോക്കാനും ഫേസ് ചെയ്യാനും അവരടുത്ത് ആശയവിനിമയം നടത്താനും പലർക്കും ഈ ഒരു സാങ്കേതികവിദ്യ കാരണം നമുക്കൊരു പ്രശ്നങ്ങളുണ്ട് പക്ഷേ ചുറ്റുമുള്ള ഇടപഴകലിലാണ് ഇങ്ങനെത്തൊരു പ്രശ്നങ്ങൾ വന്നേക്കുന്നത് പക്ഷേ സാങ്കേതികവിദ്യ കൊണ്ട് കുറേ കാര്യങ്ങൾ പലർക്കും പെട്ടെന്ന് പെട്ടെന്ന് അറിയാനുള്ള സാഹചര്യം കൂടുതലായതുകൊണ്ട് അതുകൊണ്ട് ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട് ഗുണങ്ങളും ദോഷങ്ങളും നമ്മളിപ്പോൾ നോക്കി മാത്രമേ ഈ സാങ്കേതികവിദ്യകൾ ഉപയോഗിക്കാവൂ അല്ലങ്കിൽ അതത്ര നല്ലതായിട്ടൊരു കാര്യമല്ല അത്